ഒഴിവുസമയ പ്രവർത്തനങ്ങൾക്ക് ഭലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ധാരാളമുണ്ട് പ്രധാനപ്പെട്ട ഷോപ്പിംഗ് മാളുകളൊക്കെ കേരളത്തിലുണ്ട് ഷോപ്പിംഗ് മാളുകളെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ലുലു ഷോപ്പിംഗ് മാളാണ് അത് എറണാകുളത്ത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്തുമുണ്ട് ലുലു ഷോപ്പിംഗ് മാൾ ഒരു വിസ്മയം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എറണാകുളം ലുലുവിലും തിരുവനന്തപുരം ലുലുവിലും പോയിട്ടുണ്ട് രണ്ട് മാളും എനിക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായും അതിനോട് ചുവട് പിടിച്ചു കൊണ്ട് ഒട്ടേറെ മാളുകൾ കേരളത്തിൽ ആരംഭിക്കുന്നുണ്ട് കേരളത്തിൽ പല ജില്ലകളിലും ആരംഭിച്ചിട്ടുണ്ട് വലിയതും ചെറുതുമായിട്ടുള്ള മാളുകളുണ്ട് പിന്നെ വലിയ വലിയ ഹോട്ടലുകളുണ്ട് തീർച്ചയായും ഒഴിവ് സമയങ്ങൾ എന്താണ് പറയുക ഫലപ്രദമായിട്ട് വിനോ ഉപയോഗിക്കാനായിട്ട് ജനങ്ങൾക്ക് പോവാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഇത്തരം മാളുകൾ പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഒട്ടേറെ പാർക്കുകളുണ്ട് അതായത് വാട്ടർ തീം പാർക്കുകൾ വീഗാലാൻഡ് ഇവിടെ കണ്ണൂരാണെങ്കിലും വിസ്മയ പാർക്ക് അത്തരം പാർക്കുകളൊക്കെ ധാരാളം ഉണ്ട് അതുകൊണ്ടുതന്നെ ടൂറിസത്തിന് തീർച്ചയായും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം